കോട്ടയം ജില്ലയിലെ ഭക്ഷണ രീതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ ഭക്ഷണങ്ങൾ പ്രസിദ്ധമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു അതായത് കപ്പയും മീനും കപ്പയും താറാവും അങ്ങനെ ഒട്ടേറെ ഭക്ഷണ രീതികളുണ്ട് അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അങ്ങനെ അറിഞ്ഞുകൂട എന്നാലും കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പ വേണം കപ്പ പുഴുക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കപ്പ നുറുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ അതിൽ അരപ്പിനായിട്ട് തേങ്ങാ തേങ്ങാ മഞ്ഞൾപ്പൊടി ഇത് കറിവേപ്പില ചെറു ഉള്ളി പിന്നെ ഉപ്പ് മുളക്പൊടി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വെളുത്തുള്ളി വേണ്ടവർ ചിലവർ വെളുത്തുള്ളി ചേർക്കും ഇതെല്ലാം കൂടെ അരച്ച് ഒന്നിച്ച് വേവിച്ച് പുഴുക്കായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ മീൻകറിയൊക്കെ വെയ്ക്കണമെങ്കിൽ മീൻ ആവശ്യമുണ്ട് മീൻ കഴുകി വൃത്തിയാക്കി ആ അരിഞ്ഞ് നല്ല പോലെ വെച്ചിട്ട് അതിനും അരപ്പിനായിട്ട് മുളക്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറു ഉള്ളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി എല്ലാം ചതച്ച് ഇട്ട് അതെല്ലാം ചേർത്ത് മീൻകറിയും വെയ്ക്കും അതുപോലെ ഒട്ടേറെ വിഭവങ്ങൾ വിഭവങ്ങളുണ്ട് പക്ഷേ സാധാരണ ആയിട്ട് കേൾക്കുന്നത് ഇ കപ്പപ്പുഴുക്കും മീൻകറിയും ഒക്കെയാണ്